നമുക്ക് കല്യാണങ്ങൾ നോക്കണം എന്ന് പറയുമ്പോൾ അവടെ ഇപ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ആവശ്യം ഭയങ്കര കൂടുതലാണ് അപ്പോൾ കുടിക്കാനാണെങ്കിലും കൈ കഴുകാനാണെങ്കിലും പാത്രങ്ങൾ കഴുകാനാണെങ്കിലും എല്ലാ ആവശ്യങ്ങൾക്കായാലും കല്യാണം ഭയങ്ക കല്യാണ സമയത്ത് നമുക്ക് വെള്ളത്തിൻ്റെ വലിയ ആവശ്യം ഭയങ്കര കൂടുതലാണ് അത് നമുക്ക് മെയിനായിട്ട് രണ്ടു മൂന്ന് രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും കുടിക്കാനുള്ള വെള്ളം അത് വെള്ളം നല്ല വൃത്തിയായി നല്ല അടി അതായത് നല്ല വെള്ളം വൃത്തിയായി ചൂടാക്കി അല്ലെങ്കിൽ വല്ല കരിങ്ങാലിയോ അങ്ങനെന്തെങ്കിലും സാധനങ്ങൾ ഇട്ടു വെള്ളം കൃത്യമായി തിളപ്പിച്ച് മാത്രമേ നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളു കാരണം കുടിക്കാൻ കൊടുക്കുന്നത് ആയതോണ്ട് അത് കൃത്യമായിട്ട് നല്ല രീതിയിൽ ചൂടാക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ എന്ത് അതിൽ വേറൊരു വേസ്റ്റോ അല്ലെങ്കിൽ അണുക്കളോ അങ്ങനൊന്നും വരാണ്ടിരിക്കാനാണ് കൃത്യമായിട്ട് ചൂടാക്കാൻ പറയണത് പിന്നെ നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാത്രം കഴുകാനായിട്ടുള്ള വെള്ളം കൈ കഴുകാനായിട്ടുള്ള വെള്ളം അതക്കെയാണ് അപ്പം പാത്രം കഴുകേണ്ട വെള്ളം എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ രണ്ട് ഒരു അത്യാവശ്യം നല്ല വലുപ്പമുള്ള ഒരു ചെമ്പോ അല്ലെങ്കിൽ അങ്ങനത്തെ ഇതിലിട്ടു ഒരു പാത്രത്തിൽ ചെറിയ ചെറിയ പാത്രങ്ങൾ കഴുകിയിട്ട് കുറേ കഴിയുമ്പോൾ ഒന്നോ രണ്ടോ തവണ മാറ്റുന്ന രീതീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളത്തിൻ്റെ അളവ് കുറക്കാൻ പറ്റും പിന്നെ കൈ കഴുകാനാണെങ്കിലും നമ്മൾ സാധാരണ ഇപ്പോൾ പൈപ്പ് തുറന്ന് വിട്ട് അങ്ങനെ പൈപ്പനു വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം എല്ലാ ആൾക്കാരും പൈപ്പ് ഫുൾ ആയിട്ട് തുറന്നു വെച്ച് കൈ ഇങ്ങനെ കഴുകുമ്പോൾ കൂടുതലായിട്ട് വെള്ളം നഷ്ടപ്പെടും അതേ മറിച്ച് നമുക്കിപ്പോൾ ഒരു ടാങ്കിൽ അത്യാവശ്യം ഒരു വലുപ്പം ഉള്ള ഒരു ടാങ്ക് ചെറിയൊരു രീതീൽ സെറ്റപ്പ് ആക്കാൻ പറ്റി കഴിഞ്ഞാൽ അതീന്നു അവർക്ക് വെള്ളം മുക്കാവുന്ന രീതീലാണെങ്കിൽ ഒന്നോ രണ്ടോ കപ്പ് മുക്കീട്ടവർ കൈ കഴുകി പൊയ്ക്കോളും കുട്ടികളൊക്കെ ആകുമ്പോൾ ഒന്ന് രണ്ട് കപ്പ് മറ്റേത് കുട്ടികളൊക്കെ നിന്ന് അവർ കൈ കഴുകിയാണേ ഫുൾ ടൈമായിട്ട് വെള്ളം ഇങ്ങനെ യൂസ് ചെയ്യുമ്പോൾ കൂടുതലായിട്ട് വെള്ളം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ്